നൃത്തത്തെ കുറിച്ചു എന്താണ് പറയുക നൃത്തം എന്ന് പറയുന്നത് ഒരു കലാരൂപമാണ് ഒരൂ സ്വപ്നങ്ങളാണ് നൃത്തത്തിലൂടെ ഒരാൾക്ക് അറിയാൻ പറ്റുന്നത് നൃത്തത്തെ സംബന്ധിച്ചു ഞാൻ നൃത്തം കളിക്കാറില്ലെങ്കിലും കാണാനും അത് ആസ്വദിക്കാനും ഇഷ്ടമാണ് പ്രത്യേകിച്ചു ഭരതനാട്യം മോഹിനിയാട്ടം എന്നിവയൊക്കെ ഒരു തീം ബേസ് ചെയ്തായിരിക്കും അത് പ്രസൻ്റ് ചെയ്യുന്നത് അപ്പം അവരുടെ എക്സ്പ്രക്ഷൻ അവർ കാണിക്കുന്ന അവരുടെ ഒരു ആക്ഷൻസൊക്കെ നമുക്ക് ആ ഫീലിങ് ആ ഡാൻസിൻ്റെ അല്ലേ നൃത്തത്തിൻ്റെ ഫീലിങ്ങിലേക്ക് എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള് ചെ യ്യുന്നുണ്ട് നൃത്തത്തിന് വേണ്ടി തന്നെ കോളേജുകൾസ് ഉണ്ട് അതും കലാ അക്കാദമീസ് അതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പ്രൊഫഷണലായിട്ടുള്ളവർ അതിന് വേണ്ടി എഫക്റ്റ് എടുക്കുന്നുണ്ട് നൃത്തം എന്നു പറയുന്നത് ഒരാളുടെ കഴിവാണ് അത് അയാൾക്ക് ജന്മനാ കിട്ടുന്ന സ്കിൽ ആയിരിക്കാം അല്ലെങ്കിൽ അത് ഇനി ട്രസ്റ്റ് തോന്നി ഏതെങ്കിലും ഒരു അക്കാദയിൽ ചെന്നു അതിന് വേണ്ടി പ്രയത്നിക്കുന്നതാവാം അങ്ങനെയൊക്കെയാണ് നൃത്തത്തെ കുറിച്ചുള്ള സ്വപ്നം നൃത്തം കളിക്കാറില്ല എങ്കിലും പോലും അതിൻ്റെ ഒരു തീമാറ്റിക്ക് പെർഫോമൻസ് എല്ലാം അത് ആക്ഷൻസ് ആണെങ്കിൽ കിട്ടുന്നുമുണ്ട് അതുപോലെ തന്നെ മറ്റേത് തരത്തിലുള്ള ഒരു സ്റ്റേജിൽ കയറി ഇരുന്നു അത് പെർഫോമൻസ് ചെയ്യുന്ന ഒരാൾ എന്ത് തീമാണ് പ്രസെൻ്റ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് അവരെ ഇമോഷണൽ സെൻസ് വച്ചും അവരുടെ ആക്ഷൻസ് വച്ചു പോലും നമുക്ക് അതിനെ ആക്സസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നൃത്തം ഒരു കൂടുതലായിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പൊതുസമൂഹത്തിനോട് പറയണമെങ്കിൽ നമ്മുടെ കൈയിലുള്ള കഴിവ് വച്ചു അത് ഇപ്പം നൃത്തം വച്ചാണെങ്കിൽ പോലും ആ തീം ബേസ് നമുക്ക് പറഞ്ഞ് ആൾക്കാരുടെ മനസ്സിലേക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉൾക്കൊള്ളാനൊക്കെ സാധിക്കുകയും ചെയ്യും സ്വപ്നം അത് ലക്ഷ്യം നൃത്തം ചെയ്യുന്ന ഏതൊരാൾക്കും കുറേ ലക്ഷ്യങ്ങൾ കാണും ചിലപ്പോൾ കുറേ നിറുത്താതെ നൃത്തം ചെയ്തു റെക്കോഡുകൾ സ്വന്തമാക്കാനാവാം അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങൾക്ക് ആയിരിക്കും ഇപ്പം കേരളത്തിൽ പോലും കുറേ ആളുകൾ ഒരു സെൻട്ര സ്റ്റേഡിയത്തിൽ എത്തിച്ചു കുറേ ആൾക്കാരെ അതിൻ്റെ അതിലേക്ക് എത്തി റെക്കോർഡൊക്കെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ നൃത്തത്തിന് ലക്ഷ്യങ്ങളാണ്